ഞങ്ങളുടെ നാട്ടിൽ തലവേദന പണ്ട് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടു വൈദ്യമായിട്ട് പിന്നെ തുളസി നീർ പനിക്കൂർക്കയില ഇങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ പിഴിഞ്ഞ് തല നെറ്റിക്ക് പുരട്ടുകയും പിന്നെ ഉള്ളിൽ നിലത്ത് ഇങ്ങനെ ചാലിച്ചിട്ട് അതു നെറ്റിയിൽ ഇങ്ങനെ പുരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ തലവേദന ഭയങ്കരമായിട്ട് തലവേദന വന്നു കഴിഞ്ഞാൽ വാതക്കൊടിയുടെ ഇല അത് വാതക്കൊടിയുടെ വേരെടുത്ത് ചതച്ചു തുണിയിൽ പൊതിഞ്ഞ് മൂക്കിൽ വലിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വളരെ തലവേദനക്കൊക്കെ വളരെ ആശ്വാസമുണ്ടായിരുന്നു പിന്നേ തലവേദന വന്നു കഴിഞ്ഞാൽ തുണി നനച്ച് നെറ്റിക്കിടുകയും തുണി ഇങ്ങനെ വട്ടം വട്ടത്തിൽ നല്ല ടൈറ്റായിട്ട് അത് ടൈറ്റായിട്ട് തുണി കെട്ടുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ ആശ്വാസമുണ്ടായിരുന്നു പിന്നേ പനിക്കൂർക്കയില തുളസിയില എല്ലാം തിളപ്പിച്ച് വെള്ളം കുടിക്കുക പിന്നെ ചുക്ക് കാപ്പി പോലെയുള്ള അങ്ങനെയുള്ള വയറിങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തലവേദനക്കാശ്വാസമുണ്ടായിരുന്നു പിന്നെ തലവേദനക്ക് ഒറ്റമൂലി അറിയാവുന്ന ചില വൈദ്യന്മാരുടെയൊക്കെ അടുത്തു പോയി അവർ ചെയ്യുന്ന തലയിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പച്ച മരുന്നുകളൊക്കെ അരച്ച് പിഴിഞ്ഞെടുത്ത് അത് തലയിലും നെറുകം തലയിലൊക്കെ ഒഴിച്ച് കഴിയുമ്പം തലവേദനക്ക് ആ ഒരാശ്വാസമുണ്ടായിരുന്നു ഉണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ ഈ വിക്സ് പുരട്ടുക വിക്സൊക്കെ അന്നുണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഇതൊക്കെയായിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ പിന്നെന്താ തലവേദനക്ക് വിക്സ് വിക്സ് പുരട്ടുന്നു അങ്ങനെ പിന്നെ എന്തുട്ടാ ഉള്ളി ചതച്ച് വെക്കുന്നു ഉള്ളി ഇങ്ങനെ പണ്ടൊക്കെ തറ മെഴുകിയ തറയൊക്കെയായിരുന്നു ആ തറയിലൊക്കെ ഇങ്ങനെ ഉള്ളി ഉപ്പു നീരൊഴിച്ച് ചാലിച്ചിട്ട് ചതച്ച് ഇങ്ങനെ വെച്ച് ചത നെറ്റിയിൽ തൂക്കുന്നു പിന്നെ തുളസിയില മൂക്കിൽ തുളസിയില പിഴിഞ്ഞ് മൂക്കിൽ അതിൻ്റെ നീരൊഴിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒത്തിരി ആശ്വാസമുണ്ടായിരുന്നു പിന്നെ പിന്നേ

ആടലോടകത്തിൻ്റെ ഇലയും തുളസിയില പനിക്കൂർക്കയില ചുമക്കൂർക്കയില ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം പിഴിഞ്ഞ് നല്ല വാട്ടി പിഴിഞ്ഞ് നെറ്റിയിൽ അത് തൂക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നു അതൊക്കെ കൂടി ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ആശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ ആധുനികമായിട്ടുള്ള ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം ഒത്തിരിയാശ്